കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇപ്പോൾ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകള് സ്കോളർഷിപ്പ്കള് ഇമിഗ്രേഷൻ നിബന്ധനകള് എന്ന് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഉണ്ട് ഇപ്പം പുറമെ ഒക്കെ പോയി പഠിക്കുമ്പോൾ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഒന്നെങ്കിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് അതൊക്കെ പി എച്ച് ഡി അതുപോലെ മാസ്റ്റേഴ്സ് പിന്നെ അതുപോലെ ഉള്ള ഒരുപാട് എം ബി എ ഒക്കെ ചെയ്യണമെങ്കിൽ പുറമെ പോയി പഠിക്കുബോൾ നമുക്ക് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മുൻതൂക്കം കിട്ടും എവിടെ ഒരു ജോലി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പുറമെ പോയി ഇപ്പം ലണ്ടനിൽ ആണെങ്കിലും അമേരിക്കയിൽ ആണെങ്കിലും മറ്റുള്ള കണ്ട്രീസ് കാനഡയിലാണെങ്കിലും ഒക്കെ പഠിക്കാൻ പോകാന് പിന്നേ നല്ല ചിലവ് വേണം അപ്പം ഈ ചിലവ് നമ്മള് ഇൻസ്റ്റാൾമെൻറ്റായിട്ടും അടക്കാം അല്ലാതെ ഏജൻസി വഴിയും നമുക്ക് പോകാം അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് ഒരു വർഷത്തിനുള്ളിൽ സ്കോളർഷിപ്പ് നമ്മൾ നേടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടീട്ട് നമുക്ക് ഇങ്ങോട്ട് സ്കോളർഷിപ്പിലൂടെ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ട് ട്യൂഷൻ ഫീ ആയിക്കോട്ടെ അതിൻ്റെ എന്തൊരു അവിടെ നിൽക്കുന്ന നമക്ക് പഠിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ചിലവുകളും നമുക്ക് ഫുൾ ആയിട്ടുള്ള ആ പി എച്ച് ഡി എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനുള്ള എല്ലാ എല്ലാ പൈസയും അവർ തന്നെ ചിലവഹിക്കും അപ്പം ഈ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കേണ്ടതായിട്ടും ഉണ്ട് നമ്മള് നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ എഴുതി ആണ് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കില് നമ്മളിപ്പം അഞ്ച് വർഷം ആണെങ്കിൽ അഞ്ച് വർഷം നാല് വർഷം ആണെങ്കിൽ നാല് വർഷം ആ പഠനത്തിന് വേണ്ടിട്ടുള്ള എല്ലാ ട്യൂഷൻ ഫീസും എല്ലാ ഫീസും ഈ സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുകയും നമുക്ക് പഠിച്ചിറങ്ങുന്നതിനുള്ള അത്യാവശ്യം പൈസ അവര് തന്നെ വഹിക്കുകയും നമക്ക് അതികം ചിലവില്ലാതാകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഹൈസ്കൂൾ പ്രൊഗ്രാമുകളും വിദേശത്തുള്ള ഒരു സർവ്വകലാശാലയിലെ നേരിട്ട് എൻട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് അവസരങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉണ്ട്